എൻ്റെ പ്രദേശത്ത് നിന്ന് തുടങ്ങുന്ന കബനിപ്പുഴ ഇവിടെയാണ് കബനിപ്പുഴ നമ്മുടെ ഓരോ ഭാഗങ്ങളായിട്ടിങ്ങനെ ഇവിടെ മാനന്ത മാനന്തവാടിയിലായിട്ടും പനമരത്തായിട്ടും കബനിപ്പുഴ വിസ്തരിച്ച് കിടക്കുന്നുണ്ട് അത് നമ്മള് ഉപയോഗിക്കുന്നതെന്ന് വച്ചാല് ചില അ വെള്ളം ചില നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ചില സ്ത ചില സമയങ്ങളിൽ വേനൽക്കാലത്തൊക്കെ വെള്ളം വറ്റി പോകുന്ന അവസ്ഥ ഒക്കെ വരുമ്പോൾ ഈ പുഴയിലൂടെയാണവര് കുളിയും അതുപോലെ അലക്ക് അലക്കുകയൊക്കെ ചെയ്യാം അതുപോലെ പുഴയിൽ നിന്നും നമ്മള് വെള്ളം ശേഖരിച്ച് കൊണ്ടുവന്ന് വീട്ടിൻ്റെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം വീട്ട് പുഴേൻ്റെ അടുത്തുള്ളവർക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കണം പിന്നെ അതുപോലെ ജലനിധിന്ന് പറയുന്ന പദ്ധതിയുണ്ട് അതിലൂടെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് വീട്ടിൽ വീട്ടിലെ അലക്കാനും അതുപോലെ തുടക്കാനും പത്രം കഴുകാനുവൊക്കെ ഈ ജലനിധി വെള്ളം നമുക്ക് ഉപയൊ ഉപയോഗപ്പെടു ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നം നദിയിലൂടെയുള്ള ഡാമാണോന്നറിയില്ല ഇവിടെ ഒരു പടിഞ്ഞാറേക്കര ഡാമുണ്ട് ആ ഡാമ് ഒരു മഴക്കാലങ്ങളിലൊക്കെ ഒരുപാട് വെള്ളം നിറഞ്ഞു ഡാമ് തുറക്കേണ്ടതായിട്ടൊക്കെ വരുന്ന വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് മൽസ്യ മത്സ്യങ്ങളും അതുപോലെ മീനിനെ പിടിക്കാനും ഈ പുഴകളിൽ നിന്നൊക്കെ മീനിനെ പിടിക്കാനും എല്ലാവരും പോകുന്നുണ്ട് ഈ മഴക്കാലത്തൊക്കെ എല്ലാവരും വല വലയിടാനും അതുപോലെ ചൂണ്ടയിടാനൊക്കെ പോകാറുണ്ട് മീ എൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ മഴക്കാലൊക്കെ മീനെ പിടിക്കാനൊക്കെ ഉപ്പയൊക്കെ പോകാറുണ്ട്